ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സാംസ്കാരിക പാരമ്പര്യങ്ങളും വിശ്വാസങ്ങളും എതൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതായത് പലർക്കും പല വിശ്വസങ്ങളാണ് ഇപ്പം നമുക്ക് ദൈവ വിശ്വാസം തന്നെ നമുക്ക് ഇതാക്കാം ചിലര് ദൈവ വിശ്വസികളായിരിക്കും ചിലവരു നിരീശ്വരവാസികളായിരിക്കും അങ്ങനെ ഒരുപാട് പിന്നെ പേരുണ്ട് അതായത് നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പം നമുക്ക് ഇന്ത്യേന്റെ മുഴുവൻ കാര്യമെന്ന് വെച്ചാൽ ഇൻഡ്യേലെ ഓരോ സ്ഥലത്തും ഓരോ പാരമ്പര്യങ്ങളും ഓരോ ഇപ്പം നമുക്ക് വേഷങ്ങളിൽ തന്നെ പറയാം ഇപ്പം ഇപ്പം നമ്മുടെ കേരളത്തിലുള്ള വേഷമായിരിക്കില്ല നമുക്ക് പുറത്ത് കേരളത്തിലെന്ന് പറഞ്ഞാൽ അതായത് പെണ്ണുങ്ങളാണെങ്കിൽ ചുരിദാറ് സാരി അങ്ങനെയുള്ളതൊക്കെ പിന്നെ ആണുങ്ങളാണെങ്കിൽ പാന്റ് ഷർട്ട് അല്ലെങ്കിൽ മുണ്ട് ഷർട്ട് അങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെയാണ് കൂടുതലും ധരിക്കാറ് പക്ഷേ പുറമേയൊക്കെ പോകുമ്പോൾ നമുക്ക് ഓരോ സ്ഥലത്തും ഓരോ വ്യത്യസ്ത വ്യത്യസ്ത അതായത് ഇന്ത്യയിൽ തന്നെ നമുക്ക് പല പല സംസ്ഥാനങ്ങളില് പല പല ആചാരങ്ങള് പല പല വസ്ത്ര രീതികള് പിന്നെ അങ്ങനെ ഓരോ എല്ലാം നമുക്ക് വ്യത്യാസപ്പെട്ടിരിക്കും നമുക്ക് ഒന്നും നമുക്ക് ഒരേപോലെയുള്ളതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പിന്ന വിശ്വാസങ്ങള് അതേപോലെ അവരുടെ ചടങ്ങുകള് പിന്നെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം നമുക്ക് വ്യത്യസ്തപരമായിട്ടുണ്ടാകും എല്ലാം ഒരേപോലെ ആയിരിക്കില്ല എല്ലാം മെയിനായിട്ട് എല്ലാം കാര്യങ്ങളും നമുക്ക് വ്യത്യാസപ്പെട്ട് തന്നെയാണ് ഇരിക്കുന്നത്